ഇപ്പം സാംസ്കാരികമായിട്ടുള്ള ഭിന്നതകളെ ഒന്നിപ്പിക്കാനും ആളുകളെ ഒരുമിപ്പിക്കാനും നൃത്തത്തിന് അടുത്ത വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരഭിപ്രായം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നൃത്ത വേദികള്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരും അതായത് ആൾക്കാരും ആളും കൂട്ടങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും നൃത്ത വേദികളെന്നു പറയുന്നത് അപ്പം അതിലൊക്കെ ഒരുപാട് പിന്നെ ആൾക്കാരൊക്കെ വരുന്നത് കൊണ്ടുതന്നെ ഒരുപാട് സാംസ്കാരിക ആൾക്കാരെയൊക്കെ ഒന്നിപ്പിക്കാനും പിന്നെ പരസ്പരം അതായത് ആശയവിനിമയം നടത്താനുള്ളൊരു വേദിയായിട്ട് കൂടെ നമുക്ക് നൃത്ത വേദികളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നൃത്ത വേദികള് ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നൃത്ത അല്ല ഏതൊരു സ്റ്റെയ്ജ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മള് ഒരുപാട് ആൾക്കാര് അതായത് കാണാത്ത ആൾക്കാരൊക്കെ ഒരുപാട് കണ്ടുമുട്ടാനും അങ്ങേയുള്ള പല അവസരങ്ങളും സ്റ്റെയ്ജുകളും കാര്യങ്ങളൊക്കെ നേടിത്തരുന്നുണ്ട് അപ്പം നമുക്കിന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാംസ്കാരികമായിട്ടുള്ള ഭിന്നതകള് ഒന്നിപ്പിക്കാനും ആളുകളെ ഒരുമിപ്പിക്കാനൊക്കെ നൃത്തത്തിന് നല്ല രീതിയിലുള്ള ഒരു പങ്ക് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം